എൻ്റെ അഭിപ്രായത്തിൽ സമൂഹ മാധ്യമിങ്ങളിൽ വരുന്ന വാർത്തകൾ നൂറു ശതമാനവും ശരിയാകണമെന്നില്ല കാരണം ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും കാര്യസാധ്യതയുണ്ടെങ്കിൽ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുവേണ്ടി വേണമെങ്കിൽ ഈ ന്യൂസിനെ വളച്ചൊടിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ അങ്ങനെയൊക്കെ ഒരാളെ ബ്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ പെട്ടെന്ന് സ്പ്രെഡ്ഡാവുന്നതും പെട്ടെന്നു പടർന്നു പിടിക്കുന്നതും ഈ ആൾ ആൾക്കാരെ ഇപ്പം എന്നാ പറയുക ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കുന്നതും പെട്ടെന്ന് ആൾക്കാരുടെ കൈകളിൽ എത്തുന്നതും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അതിൻ്റെ വാർത്തയുടെ സത്യസന്ധതയോ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല കാള പെറ്റെന്നും പറഞ്ഞുകൊണ്ട് കയറെടുത്തുകൊണ്ടോടാൻ തുടങ്ങും അതാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കുഴപ്പം അതിന് നൂറു ശതമാനം ശരിയാണോ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാതെ നോക്കാതെ കണ്ട് എടുത്തുചാടി ഇപ്പം കൂടുതലും ഈ എന്നാ പറയുക ഒരു അശ്ലീല ചുവയുള്ള വാർത്തകളൊക്കെ ആണെങ്കിൽ പെട്ടെന്നാൾക്കാർക്ക് താല്പര്യവുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്നുതന്നെ സ്പ്രെഡാവും അതുപോലെതന്നെ ഇപ്പം പല വാർത്തകളും എന്നാ പറയുക പല വാർത്തകളും സത്യസസന്ധമാകണമെന്നില്ല നമ്മൾ ഒരാൾ മരിച്ചെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മരിക്കാനായിട്ട് അത് തുടങ്ങിയതെ ഉള്ളുവായിരിക്കും അത് മരിച്ചെന്നു തന്നെ പറയും മരിച്ചുയെന്നു തന്നെ പറയുക അങ്ങനെയൊന്നുമല്ല ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കും അതൊക്കെ ശരിതന്നെ പിന്നെ എന്നാ പറയുന്നത് അതിനെക്കുറിച്ച് പറയാണങ്കിൽ ഇതാണെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മളതിൻ്റെ നിജസ്ഥിതികളും കാര്യങ്ങളും മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാർത്ത ഒരു മാധ്യമത്തിലൂടെയോ അല്ലാതെ മറ്റൊരു വാർത്താ ചാനലിലൂടെയോ അതോ മാധ്യമത്തിലൂടെയോ നമ്മളറിഞ്ഞ് ഒന്നിൽ കൂടുതലാണെങ്കിൽ കുറച്ചുംകൂടി വിശ്വാസയോഗ്യം ആകാം അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നൂറു ശതമാനവും ശരിയാകണമെന്നൊന്നും ഇല്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ച്ചപ്പാടാണല്ലോ ഉള്ളത് ചിലവർ പെട്ടെന്നു വിശ്വസിക്കും ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നു വിശ്വസിക്കും അല്ലെങ്കിൽ പെട്ടെന്നു വിശ്വസിക്കാതിരിക്കും അപ്പോൾ അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം സമൂഹ മാധ്യമങ്ങളിൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം അല്ലാതെ എല്ലാം അത് അവിടെ ചെന്നു നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വാർത്തകളും നമ്മൾ നൂറു ശതമാനം ശരിയായിട്ട് നൂറു ശതമാനവും ശരിയായിട്ട് നമ്മൾ വിശ്വസിക്കണമെന്നില്ല അതിന് നിജസ്ഥിതി മനസ്സിലാക്കിയതിനുശേഷം നൂറു ശതമാനം നമുക്ക് വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് അതിനെക്കുറിച്ച് ബോദേഡാവേണ്ട ആവശ്യം ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മളത് അതേ രീതിയിൽ വിട്ടു കളയാമെന്നുള്ളതേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളാണ് എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയെന്നു മാത്രമേ ഉള്ളൂ ആ പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഉള്ള വാർത്തകൾ നമ്മൾ കൂടുതൽ വിശ്വാസ്യയോഗ്യം ആക്കാം പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെതന്നെ ഓരോ സ്വാർത്ഥ താല്പര്യത്തിനുവേണ്ടി ഓരോരുത്തർ വാർത്തകളെ വളച്ചൊടിക്കാറുണ്ട് അതാണെനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്